ഇപ്പോൾ പെട്രോളിൻ്റെ ഉപയോഗമൊക്കെ എന്താ പറയുക നമ്മള് നല്ലതായിട്ട് ബാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വില വർദ്ധനവൊക്കെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നല്ല രീതിക്ക് തന്നെ ബാധിക്കുന്നുണ്ട് കാരണം പണ്ട് പെട്രോളിനൊക്കെ ലിറ്ററിന് എഴുപത്തിനാല് രൂപ ആ ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് മുതലാകുമായിരുന്നു കാരണം അന്നത്തെ വരുമാനവും നമുക്ക് ഏകദേശം കൂട്ടിമുട്ടിക്കാവുന്നതായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പെട്രോളിന് നൂറ്റി ഒൻപതു രൂപ അത്രയൊക്കെ വിലയായി അപ്പോൾ കൂടുതൽ നമ്മൾ എന്താ പറയുക പെട്രോളൊക്കെ ഇങ്ങനെ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് യാത്രയ്ക്ക് ഒരു ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ എന്താണെന്നു വച്ചാൽ അത് വാങ്ങണമെങ്കില് അതുപോലെ നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ നമ്മുടെ മാസവരുമാനത്തിൽ ഇപ്പോൾ കൂട്ടിമുട്ടിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് പെട്രോളിൻ്റെ വില വർധനവു മൂലം പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ പരിസ്ഥിതിക്ക് ഇങ്ങനെ വിലവർധനവുമൂലം എന്താ പറയുക പെട്രോളിൻ്റെ ഇങ്ങനെ കൂടുതൽ ഉപയോഗം മൂലം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഉണ്ട് കാരണം ഈ പെട്രോൾ ഒക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ പുകയൊക്കെ വരുമ്പോൾ വാഹനങ്ങളൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുകയും പൊലൂഷൻ ഒക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് പരിസ്ഥിതിക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം അന്തരീക്ഷത്തിലൊക്കെ ഇത് കേട്ടേന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്ധനങ്ങൾ ഇപ്പോൾ പൊതുവേ എന്താ പറയുക വിട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പരിസ്ഥിതിക്കും പ്രശ്നമുണ്ട് എന്നാലും ഇപ്പോൾ ഇന്ധനം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം വാഹനങ്ങൾക്ക് ഇന്ധനം ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ വാഹനം ഇല്ലാണ്ട് ആർക്കും പറ്റാണ്ടായി അപ്പോൾ അത് നിലവില് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇന്ധനത്തിൻ്റെ വില വർദ്ധനവ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആയിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ കരുതുന്നത്